ഞാൻ സാധാരണ ഈ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുന്നത് പെയിൻറ്റിങ് പെയിൻറ്റിങ് ചെയ്യുന്നതൊക്കെ ക്യാൻവാസിൽ ആയിരിക്കും ക്യാൻവാസിലാണ് കൂടുതലും പെയിൻറ്റിങ് ചെയ്യാറ് പിന്നെ പോർട്രൈറ്റ് ഇമേജ് ഒക്കെ വരക്കുന്നത് എ ഫോർ സൈസ് അല്ലെങ്കിൽ എ ത്രീല് പേപ്പറിലാണ് വരക്കുന്നത് ഓരോ സൈസിന് അനുസരിച്ച് ഓരോ ഫോട്ടോയിൻ്റെ സൈസിനനുസരിച്ച് വരയ്ക്കും കൂടുതലും എ ഫോറിലാണ് വരയ്ക്കാറ് എ ത്രിയിലും വരയ്ക്കാറുണ്ട് പിന്നെ ഓയിൽ പെയിൻറ്റെക്കെ വാട്ടർ കളറിങ്ങൊക്കെ ചെയ്യുന്നത് സാധാരണ പേപ്പറിലാണ് സാധാരണ എ ത്രി എ ഫോർ അങ്ങനെയുള്ള പേപ്പറുകളിൽ തന്നെയാണ് വാട്ടർ കളറും ചെയ്യുന്നത് കൂടുതലും ഞാൻ പേപ്പറാണ് യൂസ് ചെയ്യുന്നത് ക്യാൻവാസ് വളരെ റെയർ ആയിട്ടേ യൂസ് ചെയ്യുള്ളൂ പിന്നെ റേയ്റ്റും കൂടുതലായോണ്ട് കൂടുതലും പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് എ ത്രീ എ ഫോർ എ ഫൈവ് അങ്ങനെയുള്ള പേപ്പറിലാണ് കൂടുതലും വരയ്ക്കുന്നത്